ഞാൻ പ്രകൃതിയുടെ ഒരു ചിത്രം എടുക്കാനാണ് താൽപര്യപ്പെടുന്നത് കാരണം എന്ന് വെച്ചാൽ പ്രകൃതി നമുക്ക് നല്ലൊരു ഭംഗി ഉള്ള ആസ്വാദമാക്കും രാവിലെയൊക്കെയാണെ മനസിന് ഒരു കുളിര്മ്മ ഉള്ളതൊക്കെയായിട്ടാണ് നമുക്ക് കണ്ടു വരുന്നത് സൂര്യന് ഉദിച്ചു വരുമ്പോഴാണെലും സൂര്യന് അസ്തമിക്കുമ്പോഴാണെലും നീല ആകാശത്ത് വെള്ള വെള്ള മേഘങ്ങൾ വന്നു കിടക്കുന്നത് ഒക്കെ പ്രകൃതിയൊക്കെയാകുമ്പം നമുക്ക് നല്ലൊരു ഇതാണ് രാവിലെ എഴുന്നേറ്റ് നമ്മൾ നോക്കുമ്പം മഞ്ഞു പുതഞ്ഞു കിടക്കുന്ന പുല്മേടുകളും പിന്നെ അതുപോലെ ഉള്ള പച്ചപ്പ് നിറഞ്ഞ പുല്മേട്ടുകളും അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒത്തിരി സന്തോഷം ഉള്ള കാര്യമാണ് അതുകൊണ്ട് നമുക്ക് കൂടുതലും പ്രകൃതിയെയാണ് നമ്മൾ സ്നേഹിക്കുന്നതും പ്രകൃതി നമുക്ക് ഒരു വരദാനമാണ് അതുപോലെ തന്നെ പ്രകൃതിയെ നമുക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു മരം നട്ടാൽ ആ മരം വളർന്നു നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ആ പ്രകൃതിയിൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു എനർജിറ്റി ആണ് നമുക്ക് ലഭിക്കാറുള്ളത് പ്രകൃതി പ്രകൃതിയെ നമ്മുടെ ഉപേക്ഷിക്കാത്ത എന്നും സ്നേഹിച്ച് പരിപാലിക്കുന്ന ഒരു ഘടകമാണ് പ്രകൃതി എന്നുള്ളത്